ഞാൻ ഒരു ഹെഡ്ഫോണ് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതിന് അതിനെ കുറിച്ച് അനേഷിച്ച് ഞാൻ ടൗണിൽ പോയിട്ട് ഉണ്ടായിരുന്നു കടകളിൽ പോയപ്പോൾ നല്ല റേറ്റ് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാന് ഓൺലൈൻ ആയിട്ട് ആണ് ഈ ഹെഡ്ഫോണ് മേടിച്ചത് ജെ ബി എൽ യിൻ്റെ ഹെഡ്ഫോണ് ആണ് മേടിച്ചത് അപ്പോൾ അത് നല്ല ഒരു പ്രോഡക്റ്റ് ആയിരുന്നു നല്ല വില കമ്മിയില് എനിക്ക് അത് കിട്ടി പെട്ടന്ന് തന്നെ ഓഡർ ചെയ്ത് രണ്ട് ദിവസത്തിന് ഉള്ളിൽ തന്നെ എനിക്ക് സാധനം കൈയിൽ കിട്ടി പാക്ക് തുറന്ന് നോക്കിയപ്പോൾ തന്നെ നല്ല അട്രാക്റ്റീവ് കളർ ആയിരുന്നു എന്തുകൊണ്ടും നന്നായി മാച്ച് ആയിട്ട് എനിക്ക് തോന്നി അതേപോലെ സൗണ്ട് ആണെങ്കിൽ നല്ല സൗണ്ടും നല്ല ബാസ് ഉണ്ട് എല്ലാ ഫോണിലും സ്യൂട്ട് ആണ് ഞാൻ വീട്ടില് എൻ്റെ ഫോണിലേക്ക് സ്യൂട്ട് ആണോന്ന് നോക്കിയിട്ട് ഉണ്ടായിരുന്നു എല്ലാ ഫോണിലേക്കും നന്നായി സ്യൂട്ട് ആകുന്നുണ്ട് അതേപോലെ നല്ല സൗണ്ട് എക്സ്പീരിയൻസും തരുന്നുണ്ട് കംപ്ലൈൻറ് ഒന്നും വന്നിട്ടില്ല ഇതുവരെ നല്ല ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഹെഡ്ഫോണ് അതുകൊണ്ട് തന്നെ എനിക്ക് കൺഫർട്ടബിൾ ആയിട്ട് തോന്നി ഈ പ്രോഡക്റ്റ്